ഹലോ മ്മ് പറഞ്ഞോളൂ അതേ എന്നാ

ഇല്ലില്ല ഒത്തിരി പഴയതാണോ കൊലുസ്സ് ആ

ആ ഹാ

ആ അതിനെന്നാ ഇന്നത്തെ റേറ്റ് അനുസരിച്ച് എടുക്കാന്ന് എടുക്കാമല്ലോ കാരണം പിന്നെ നയൻ വൺ സിക്സ് ഗോൾഡിന് അറുപത്തിയഞ്ചു രൂപ അടുത്താകും അപ്പോള് നാളെ നിങ്ങള് ഗോൾഡെടുക്കാന് വരുമ്പോള് വില കുറയുകയാണെങ്കില് അതനുസരിച്ചു തരാം പിന്നെ പഴയതു മാറിയെടുക്കണം അല്ലേ അപ്പോള് നിങ്ങള്ക്ക് ഡിസ്കൗണ്ടും തരാം ഇവിടെ വന്നെടുക്കുന്നതുകൊണ്ട് അതുകൊണ്ട് സ്വർണം ഗോൾഡുമായിട്ട് പോരൂ കുഴപ്പമില്ല കെട്ടോ കാണും വേറെ ഗോൾഡ് വല്ലതും ഇരിപ്പുണ്ടോ പഴയതൊക്കെ മ്മ് അപ്പോള് വിഷു ആയിക്കൊണ്ട് ഓഫറുണ്ട് ഞങ്ങളുടെ ജ്യൂലറി ഒത്തിരി ഓഫറൊക്കെ ഇടുന്നുണ്ടേ കാരണം പുതിയ മോഡലുകളുണ്ട് പിള്ളേർക്കു പറ്റിയ മാലകളും കമ്മലുകളുമൊക്കെ മോതിരമൊക്കെ ഉണ്ട് ചേച്ചിക്കൊക്കെ പറ്റിയത് വരുവാണെങ്കില് പിന്നെ ഒത്തിരി ഓഫറുകള് വിഷു ഓഫറുണ്ട് അതുകാരണം വിഷു ഓഫറിന് എന്തേലും ഗോൾഡ് പഴയതൊക്കെ ഇരിപ്പുണ്ടെങ്കില് കൊണ്ടുപോരൂ നമുക്കു മാറിയെടുക്കാം

ആ വള മാറാം ഒത്തിരി വർക്കില്ലാത്തതാണെങ്കില് കുഴപ്പമില്ല ഒത്തിരി പണിക്കൂലിയൊന്നും പോവില്ല ഒത്തിരി പൈസ അതില്ലാതെ നമുക്കു മാറിയെടുക്കാന് പറ്റും മ്മ് മ്മ്

ആ അയിനെന്നാ പോരേ എത്ര നല്ല മോഡല് നോക്കി എടുത്തു തരാമേ പുതിയ ഡിസൈൻസൊക്കെ വന്നിട്ടുണ്ട് ചേച്ചിക്കതിൻ്റെ ഇത് കാണണോ ഫോട്ടോ വല്ലതും കാണണമെങ്കില് സെൻഡേയ്തു തരാം ആ നോക്കിയിട്ട് സെലെക്ടെയ്ത് മോളേം കൂട്ടി പോരൂ നമുക്കതില്നിന്ന് ഇഷ്ടമുള്ളത് ജ്യൂലറി വരുമ്പോള് എടുക്കാം കെട്ടോ ഓക്കേ ചേച്ചയുടെ ഇത് പിന്നെ വാട്ട്സ്സാപ്പുള്ള നമ്പറല്ലേ ഈ നമ്പറിലേക്ക് സെൻഡെയ്താല് മതിയോ ഓക്കെ എന്നാല് അയച്ചുതരാവേ ആ കൊലുസ്സ് തന്നെയല്ല അല്ലാത്തത് ചേച്ചിക്കു വേണമെന്നു പറഞ്ഞ ഓർണമെൻസിൻ്റെ ഫോട്ടോ കൂടിയൊക്കെ ഇട്ടേക്കാമേ ആ നോക്കിയിട്ടു പറഞ്ഞേര് ഓക്കെ ശരി താങ്ക്യൂ വന്നേര്